ഹലോ ഡോക്ടറല്ലേ എനിക്ക് പനിയാണ് ഒരു രണ്ടു ദിവസമായി

ഇടവിട്ട് ഇടവിട്ടാണ് ചുമയും ജലദോഷവുമൊന്നുമില്ല തൊണ്ട വേദനയൊന്നുമില്ല തലവേദന ചെറുതായിട്ട് മരുന്ന് പാരസെറ്റാമോള് കഴിച്ചിരുന്നു

കുറവില്ല ആശുപത്രിയിൽ കാണിച്ചിട്ടില്ല

ആ

ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല

ആ ആ വീട്ടിൽ ആർക്കുമില്ല അങ്ങനെ നനഞ്ഞിട്ടൊന്നുമില്ല തണുപ്പ് അടിച്ചിട്ടില്ല മഴ നനഞ്ഞിട്ടില്ല വേറെ അസുഖമൊന്നുമില്ല ആ

ആ ഓക്കെ ആ ശരി ഡോക്ടർ